ജോലിക്ക് പുറത്ത് എനിക്ക് ഇഷ്ടം പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ് അതുപോലെ തന്നെ എന്താ പറയുക ഇങ്ങനെ ഡാൻസ് അങ്ങനത്തെ പരിപാടികളെല്ലാം കാണാൻ ഇഷ്ടമാണ് യാത്രകൾ പോകാൻ ഇഷ്ടമാണ് പിന്നെ ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ഒരുപാട് ഹോബികൾ ഉണ്ട് അപ്പം കൂടുതലായിട്ടും എന്താ പറയുക നമ്മൾ ജോലി ചെയ്ത് ത എപ്പോഴും എപ്പോഴും ജോലിയല്ലേ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് റിലാക്സ് ആകാൻ വേണ്ടി നമുക്ക് എനിക്ക് കൂടുതലും ഇഷ്ടം പൊറ പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് എന്താ പറയുക നമ്മൾ എപ്പോഴും വീടിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെ അടച്ചു പൂട്ടി ഇരിക്കുകയല്ലേ അപ്പോൾ നമുക്ക് പുറത്തുപോയി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് റിലാക്സായിട്ട് തിരിച്ചു വരാം ഏറ്റവും കൂടുതൽ ഹോബി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ് അപ്പോൾ കൂടുതലായിട്ടും എന്താ പറയുക വീട്ടിലിരിക്കുന്ന സമയത്തും ജോലികഴിഞ്ഞ് ഒരു ഉച്ച വരെ വീട്ടിൽ ഇരിക്കുന്ന സമയത്താണ് ഉച്ചവരെ ആയിരിക്കും പണികളൊക്കെ ഉണ്ടാവുക അത് കഴിഞ്ഞിട്ട് നമ്മൾ വീ ഇച്ചിരി കിടക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും പാട്ട് വെക്കാറുണ്ട് ജോലികൾക്ക് ജോലിയുടെ ഇടയ്ക്ക് ആണെങ്കിലും നമ്മൾ സൗണ്ടിൽ എന്താ പാട്ട് വെച്ചിട്ടാണ് ചെയ്യാറ് അപ്പോൾ പാട്ട് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അതാണ് ഏറ്റവും വലിയ ഹോബി